സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ ഈ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവാണ് വാട്സാപ്പിലാക്റ്റീവാണ് അപ്പം ഈ സെ അപ്പം ഈ സ്നാപ് ചാറ്റിൽ ആക്റ്റീവാണപ്പം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അങ്ങനെ പൊതുവെ ഫോട്ടോസൊന്നും പോസ്റ്റ് ചെയ്യാറില്ല ലൈക്ക് പൊതുവെ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞീ തീരെ കുറവായിരിക്കും മിക്കവരും തന്നെ അങ്ങനെ ചെയ്യാറില്ല എനിക്ക് എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാൻ തീരെ താല്പ്പര്യം ഇല്ല പക്ഷേ എങ്കിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ സ് അല്ലെങ്കിൽ സ്നാപ്പ് ചാറ്റെട്ക്കാണെങ്കിൽ സ്നാപ് ചാറ്റില് ഈ എവിടേലും പോവുമ്പം അതിന്റെയെക്കെ സ്നാപ്പിടും അല്ലാതെ അത്രേ ഉള്ളൂ അല്ലാതെ എൻ്റെത് എൻ്റെ മുഖം അങ്ങനെ റിവീൽ ചെയ്യുന്നത് ഭയങ്കര കുറവാണ് ഞാൻ പോസ്റ്റെ ചെയ്യാറ് ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും ഒരു സ്റ്റോറിയെക്കെ ഇട്ടിട്ടാലേ ഉള്ളൂ പോസ്റ്റൊന്നും ചെയ്യത്തൊന്നൂല്ല സ്നാപ് ചാ സ്നാപ് ചാറ്റിലും പൊതുവേ ഇങ്ങനെ ചുമ്മാ എൻ്റെ മുഖം വരുന്നന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തീരെ കുറവാണ് അപ്പം പൊതുവേ തന്നെ എനിക്ക് താല്പര്യമില്ല എൻ്റെ കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയാ പ്ലാറ്റ്ഫോംസിൽ ഡിസ്ക്ലോ ഡിസ്ക്ലോസ് ചെയ്യാൻ എനിക്കോട്ട് തീരെ തീരെ താല്പര്യം ഇല്ല